വർഷാരംഭത്തിൽ ആളുകൾ കലണ്ടർ എടുത്ത് വെക്കുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഏതാണ് ദിവസം അല്ലെങ്കിൽ ഏതാണ് ഡേറ്റ് അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രത്യേകതകളുണ്ടോ എന്തെങ്കിലും അവധി ദിവസങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ അന്നത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നീക്കിവെക്കേണ്ടതായിട്ടുണ്ടോ എവിടെയെങ്കിലും പോകാനോ മറ്റോ ഉണ്ടോ എന്നറിയുന്നതിന്ന് കലണ്ടറുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട് ഏറ്റവും അധികം ശേഖരിക്കാറുള്ള കലണ്ടറുകൾ പ്രതിമാസ കലണ്ടറുകളാണ് അതായത് അങ്ങനെയുള്ള കലണ്ടറുകൾ കലണ്ടറുകളിൽ ആ വർഷത്തെ എല്ലാ മാസത്തെയും ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതുകൊണ്ടുതന്നെ നമുക്ക് അതിൽ നോക്കി നമുക്ക് ആവശ്യമുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കാനായിട്ടും ഏതൊക്കെയാണ് ദിവസം അല്ലെങ്കിൽ ഏതൊക്കെ ആഴ്ചയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളത് നോക്കി നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിക്കുവാനായിട്ടും ദിവസങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനായിട്ടും എല്ലാം സാധിക്കും മാസങ്ങൾക്ക് ശേഷമുള്ളൊരു ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കലണ്ടറുകൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് കലണ്ടറുകൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഭിത്തിയിൽ തൂക്കിയിടുന്ന കലണ്ടറുകളാണ് കലണ്ടറുകളിൽ നോക്കി ഓരോ ദിവസത്തെയും എനിക്ക് ദിവസമേതാണ് ഡേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ അവധി ദിവസങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനായിട്ടും കലണ്ടറുകൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് കലണ്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എല്ലാ ദിവസവും അതിൻ്റെ ആഴ്ച്ച ഏതാണ് എന്നതും അവധി ദിവസങ്ങൾ ചുമല അക്ഷരത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കറുത്ത അക്ഷരത്തിൽ സാധാ ദിവസങ്ങളും ചുവന്ന അക്ഷരത്തിൽ അവധി ദിവസങ്ങളും പ്രവർത്തി ദിവസങ്ങളും വേർതിരിച്ച് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ചുവപ്പ് അക്ഷരം രേഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഏതൊക്കെയാണ് ആഴ്ച്ച എന്ന് ഏതൊക്കെ അവധി ദിവസങ്ങൾ നിലവിൽ ഇനി വരാനുണ്ട് എന്നതും ഏതൊക്കെ ദിവസം നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല അവധി ദിവസങ്ങളില്ല അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം തിരിച്ചറിയാനായിട്ട് സഹായിക്കും കലണ്ടറുകൾ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ചിത്രങ്ങൾ കൂടുതലുള്ള കലണ്ടറിനോടാണ് കലണ്ടറുകളോടാണ് താല്പര്യം കൂടുതൽ ചിത്രങ്ങൾ ചിത്രങ്ങൾ കൂടുതലുള്ളവരോട് നമുക്ക് അവധി ആകർഷകമായ വിധത്തിൽ ദിവസങ്ങൾ തിരിച്ചറിയാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട് ചിത്രങ്ങൾ എന്നാൽ കൂടുതൽ പൂക്കൾ പുഴകൾ പ്രകൃതിഭംഗി എന്നിവയുള്ള ചിത്രങ്ങളടങ്ങുന്ന കലണ്ടറുകളാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നതും ആഗ്രഹിക്കുന്നതും ചിത്രങ്ങളുടെ കാര്യങ്ങളെടുത്ത് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ചിത്രങ്ങൾ ഞാൻ കാണാറുണ്ട് പല വിധത്തിലുള്ള ചിത്രങ്ങൾ കലണ്ടറുകളിൽ കാണാറുണ്ട് ഓരോ സ്ഥാപനത്തിന് അവരുടെ പരസ്യം എന്നവണ്ണം കലണ്ടറുകൾ രൂപപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കലണ്ടറുകൾ ഞാൻ അധികം വാങ്ങാറില്ല ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പ്രകൃതി ഭംഗിയോടെ ഉള്ള കലണ്ടറുകൾ ഒക്കെയാണ് അതിനാൽ തന്നെ വർഷാരംഭത്തിൽ ആളുകൾ കലണ്ടർ എടുത്ത് വെക്കുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്കുള്ള കലണ്ടറുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏതൊക്കെ ദിവസങ്ങൾ അവധി ദിവസങ്ങളുണ്ടെന്നുള്ളതെല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്